വിദ്യാഭ്യസം വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമീണ പ്രദേശങ്ങളിലെ ആളുകൾ കൂടുതൽ സമൂഹത്തിൽ അവഗണനയും പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു എന്നത് ശരി തന്നെയാണ് കാരണം നഗരങ്ങളിൽ ഉള്ള ആളുകൾ അവരുടെ സാമ്പത്തിക സ്വാധീനങ്ങൾ ഉപയോഗിച്ചും ഒക്കെ ഓരോ കാര്യങ്ങൾ നടത്തി എടുക്കുമ്പോൾ ഗ്രാമങ്ങളിലെ ആളുകൾക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ ഒത്തിരി പിന്നോക്കാം ആവുകയും അവർക്ക് പല കാര്യങ്ങളിലും പോരായ്മകൾ സംഭവിച്ച് മുമ്പോട്ട് വളർന്ന് വരുവാനോ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയാനോ ഒന്നും അവർക്ക് അവസരം ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഗ്രാമീണ ജനത സമൂഹത്തിൽ ഒരു അവഗണിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ഒരു ഒരു ഒരു പ്രശ്നം അനുഭവിക്കുന്നു എന്ന് അവർ വളരെ അവഗണന അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ് കാരണം അവർക്ക് സാമ്പത്തികമില്ല വിദ്യാഭ്യാസമില്ല അങ്ങനെ പ പല സ്ഥലങ്ങളിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രാമപ്രദേശങ്ങളിൽ അവർ അവിടുത്തെ ആ ഒരു സാഹചര്യവുമായിട്ട് ഒതുങ്ങി കൂടുകയും അങ്ങനെ നഗരത്തിലെ ആളുകളുമായിട്ട് ഒരു സമ്പർക്കം പോലും അധികം ലഭ്യമാകാതെ ചെറിയ ജീവിത ശൈലിയിൽ അത് അവർക്കുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവ അവർ ഗ്രാമീണ ജനത തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈകാര്യം ചെയ്തും ഒക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഇപ്പോഴത്തെ കാലത്ത് ഈ തൊഴിലുറപ്പ് പോലുള്ള സംവിധാനങ്ങളും അതുപോലെ കുടബശ്രീ പോലുള്ള സംവിധാനങ്ങളും ഒക്കെ വന്നതിൽ പിന്നെയാണ് ഗ്രാമീണ ജനതക്ക് കുറച്ചൊക്കെ കാര്യങ്ങളിൽ സാമ്പത്തിക സഹായങ്ങളക്കെ ആയാലും ലഭിക്കുന്ന അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും കുറച്ചൊക്കെ ക അറിവ് നേടുന്ന ഒരു കാര്യം സംവിധാനത്തിലോട്ട് ഒക്കെ ആളുകൾ വരുന്നതായിട്ട് ഒക്കെ കാണാൻ സാധിക്കും കാരണം പണ്ടുണ്ടായിരുന്ന ഒ അത്രയും ഒരു മോശമായ ഒരു അവസ്ഥ ഇന്നത്തെ ഗ്രാമീണ ജനത അനുഭവിക്കുന്ന ഇല്ല എങ്കിൽ പോലും ഗ്രാമീണ ജനതക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടതായിട്ടുണ്ട് കാരണം നഗരങ്ങളിലെ ആളുകൾക്ക് സാമ്പത്തികവും വിദ്യാഭ്യാസവും എല്ലാം എല്ലാം മീഡിയയുടെ മീഡിയയുടെ ഈ യുഗത്തിൽ ഇന്നത്തെ ജീവിതശൈലിക്ക് അനുസരിച്ച് അവർ വളരുമ്പോൾ ഗ്രാമീണ ജനത പലതും അറിയാതെ പോകുന്നു അല്ലങ്കിൽ അവർക്കാ സാധ്യതകൾ ഒക്കെ പ്രയോജനപ്പെടുത്താൻ ആയിട്ടുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു അതിലേക്ക് ഒന്നും അവർക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നമുക്ക് കണ്ടുവരുന്നു കാരണം സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിലാണ് അവർക്ക് പലപ്പോഴും ഈ വിദ്യാഭ്യാസമായാലും വേണ്ട രീതിയിൽ ലഭ്യമാകാതിരിക്കുന്നത് അപ്പോൾ അ അങ്ങനൊക്കെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുമ്പോൾ അവർക്ക് ഒരു നല്ല വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒക്കെ വരുന്നത് കൊണ്ടാണ് അവർക്കും വിദ്യാഭ്യാസം ഇല്ല അവ അവരുടെ മക്കൾക്കും അതനുസരിച്ച് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത് ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യങ്ങളാണ്